ഇന്ത്യയിലെ ഭക്ഷണം എങ്ങനെയാണെന്ന് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല സംസ്ഥാനത്തും പല ഇന്ത്യയിലെ പല സംസ്ഥാനത്തും പല ഭക്ഷണങ്ങളാണ് ഇപ്പോൾ ചില സംസ്ഥാനത്ത് ഒക്കെ ചപ്പാത്തി അവർക്കതൊക്കെയാണ് മെയിൻ പക്ഷേ നമുക്കെന്ന് വെച്ചാൽ കേരളത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറാണ് മെയിൻ ചോറ് ഇല്ലാണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം നമുക്ക് ഒരു ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ഏതെങ്കിലും ഒരു നേരം നമുക്ക് ചോറ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതാണ് ഇന്ത്യക്കാരുടെ ഒരു അവസ്ഥ പിന്നെയെന്നു വെച്ചിട്ട് അല്ല കേരളക്കാരുടെ അവസ്ഥ അപ്പം ചില വീടുകളിൽ ഒക്കെ അതായത് ഉച്ചയ്ക്ക് രാവിലെ രാത്രി ഒക്കെ ചോറ് തന്നെയായിരിക്കും പിന്നെ അപ്പം നമുക്ക് മെയിനായിട്ട് അതാണ് പിന്നെ നമ്മുടെ മസാലകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സാമ്പാർ പൊടി പിന്നെ ചിക്കൻ പൊടി രസം പൊടി മല്ലിപ്പൊടി മുളകുപൊടി മഞ്ഞൾപ്പൊടി കാപ്പിപൊടി ചായപ്പൊടി അങ്ങനെയുള്ള ഒരുപാട് മസാലകൾ ഒക്കെയുണ്ട് കാപ്പിപ്പൊടി ചായപ്പൊടി ഒന്നും മസാല അല്ല പക്ഷേ നമുക്ക് ബാക്കി പറഞ്ഞതൊക്കെ നമുക്ക് കറികളിൽ ഒക്കെ അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ് ഈ മസാലകളൊക്കെ ഓരോ സ്ഥലത്തും ഓരോ വ്യത്യസ്ത വ്യത്യസ്ത ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും